ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി രണ്ട്